തേങ്ങ മരച്ചീനി മുതലായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അധികം ആദായം ഉണ്ടാക്കുന്ന വിളകളാണ് ഇവർ ഈ ഈ വിളകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രണ്ട് വിളകളെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കുരുമുളകും അങ്ങനെയുള്ള ഒരു വിള തന്നെയാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു കൂടുതൽ ആദായം ആദായം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എല്ലാ ആളുകളും ഇത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അപ്പം എല്ലാ ആളുകളും ഇത് ഉപയോഗിക്കുന്നു അതിലൂടെ എന്ത് ചെയ്യുന്നു അവർക്ക് അതിൻറേതായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നു